ഞാൻ നെയ്ത്ത് എന്നു പറഞ്ഞാൽ അറിയില്ല തുന്നൽ ഞാൻ അത്യാവശ്യം ഞാൻ അധികം ഇതില്ലാതെ പഠിച്ചിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം തൈക്കുകയൊക്കെ ചെയ്യും പിന്നെ നെയ്ത്ത് എന്നു പറഞ്ഞാൽ നെയ്ത്തിന് പണ്ട് ഞാൻ പോയിട്ടുണ്ട് പകുതി കുറച്ച് ദിവസം പോയി പിന്നെയത് നിർത്തി പിന്നെ ഇപ്പോൾ ഞാൻ തയ്യലാണ് തയ്യൽ കുറച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ അവിടെയും പിന്നെ കുറച്ച് എന്തെങ്കിലും അത്യാവശ്യം ചുരിദാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടിക്കും പിന്നെ ചുരിദാർ ബ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ അടിക്കാറുണ്ട് അല്ലാണ്ട് നെയ്ത്ത് പണി ഞാൻ നെയ്ത്ത് അങ്ങനെ വലിയ നിവർത്തിയൊന്നും ഞാൻ ഇപ്പോൾ നെയ്ത്തിനു പോക്കില്ല ഇപ്പം തുന്നലാണ് തുന്നൽ പരിശീലനം കഴിഞ്ഞ് ഇപ്പം അത്യാവശ്യം തുന്നൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ക്യാഷും കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പം പത്രങ്ങൾ നിർമ്മിച്ച് എല്ലാവർക്കും നൽകുന്നുണ്ട്